ആ ചേച്ചി ഞാൻ കുറച്ച് പൂ മേടിക്കാൻ വന്നതാണ് ഈ മറ്റേ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള പൂവൊക്കെ ഉണ്ട് പറഞ്ഞു അപ്പോൾ ഏതൊക്കെയാണ് ഉള്ളതിവിടെ ആണോ ഇപ്പം നമ്മളെ ഈ ചെടിയിപ്പോൾ നമ്മളിപ്പോൾ എവിടെ വച്ചാലാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് നല്ല പെട്ടന്ന് നന്നായി വിരിയാൻ കായ് ഇതൊക്കെ ഉണ്ടാവുക പെട്ടെന്ന് നന്നായിട്ടിപ്പോൾ വിരിയണത്

ആ അതിപ്പോൾ നമ്മൾ ഈ നല്ല സൂര്യപ്രകാശം പറയുമ്പോൾ നേരിട്ടടിക്കണത് എങ്ങനെയാണ് അഥവാ നമുക്ക് അതിന് വല്ല മറ്റേ ഈ ഗ്രീൻ ഹൗസ് പൊലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാൻ വീട് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഈ ഈ മൊട്ടക്കുന്ന് പോലത്തെ സ്ഥലാമാണ് അപ്പം നല്ല ചൂടടിക്കും ചൂടിപ്പോൾ നല്ല കൂടുതലായിരിക്കും

ആ ഓക്കെ നമ്മൾ എന്തൊക്കെ വളമാണിപ്പോൾ ഇടേണ്ടത് ഇപ്പോൾ ചെടി വയ്ക്കുമ്പോൾ എങ്ങനെയാണ് വയ്ക്കേണ്ടത് അതെയല്ലേ ആ അപ്പോൾ മറ്റേ നമ്മളിപ്പോൾ ഈ പുതിയ ചെടികൾ വയ്ക്കുമ്പോഴേ അടുത്തടുത്ത് ചെടി വച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ കളറ് വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ രണ്ട് ചെടിയിൽ നിന്ന് ബഡ്ഡിങ്ങൊക്കെ പോലെ ആ അതെയല്ലെ എനിക്കങ്ങനത്തെ അങ്ങനത്തെ ഇവിടെ ഉണ്ടോ ബഡ്ഡിങ്ങ് ചെയ്തതിൻ്റെ എതെങ്കിലും വിത്ത് തൈയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ അതിന് അഡ്വാൻസ് എന്തെങ്കിലും വേണോ ഓഡറ് വരണമെങ്കിൽ ആ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മൂന്നാല് ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള കളറ് വരണ രീതിയിലുള്ള ഇത് ചെയ്ത് തരുവോ എത്ര ദിവസത്തേക്ക് രണ്ട് മാസം അല്ലേ ആ ശരി ഓക്കെ ഞാനപ്പോൾ എന്തായാലും ഇപ്പം തൽക്കാലം ഒന്നും വേണ്ട ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് രണ്ട് മൂന്നെണ്ണം തൈ ഞാൻ നോക്കിയേച്ച് പോയിരിക്കാം മറ്റ് രണ്ട് മാസത്തിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ ഉപകാരമായി ആ ശരി ശരി ശരി